ഹലോ ഇത് ഞാൻ ഇവിടെ ടൂറിസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ കടന്നുവന്ന ഒരാളാണേ അപ്പം ഞാൻ വളരുന്നത് ബംഗ്ലാദേശിലാണ് പക്ഷേ എൻ്റെ പേരൻസ് ഓൾറെഡി കേരളയാണ് അതുകൊണ്ട് ഞാൻ സിസ്റ്ററോട് ചോദിക്കുക ഇവിടെ കേരളത്തെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് നല്ല പ്രദേശമാണ് നല്ല ഭൂപ്രകൃതിയാണ് പിന്നെ അതുപോലെതന്നെ തെങ്ങും ഒത്തിരിയൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതിനെ പറ്റിയൊക്കെ സിസ്റ്ററിനോട് എന്തേലുമൊക്കെ എന്നോട് സംസാരിക്കാൻ പറ്റുമോ ഓക്കേ

ഓക്കേ ഓക്കേ അതേ ഓക്കേ ഓക്കേ അതുപോലെ ഈ തെങ്ങ് ഈ എണ്ണയെടുക്കുന്നതും അത് കൂടുതൽ ഉല്പാദിപ്പിക്കപ്പെടുന്നുണ്ടല്ലോ അപ്പം അതിനെപ്പറ്റി ഒന്ന് പറയാൻ പറ്റുമോ അതിൻ്റെ പ്രോസസും കാര്യങ്ങളുവൊക്കെ എങ്ങനെയാണെന്ന് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ ഉം ഉം ഓക്കേ ഓക്കേ

ഓക്കേ അതിന് എന്താണ് ഉപകാരമുള്ളത് ആ തേങ്ങാ പിണ്ണാക്ക് കൊണ്ട് എന്താണ് ഉപകാരം ഉള്ളത് ഓക്കേ അതിനു വേറെ സൈഡ് ഇഫക്ടൊന്നുമില്ലല്ലോ അല്ലേ ഓക്കേ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഈ നല്ല പ്യുവർ എണ്ണയുടെ കൂടെയും സൺ ഫ്ലവർ ഓയിൽ പോലെയുള്ളത് ആഡ് ചെയ്ത് കൂടുതല് അങ്ങനത്തെ എന്തെങ്കിലും ആയിട്ടുള്ള എന്തെങ്കിലും തെറ്റായ രീതിയിൽ ഉള്ളത് ഉണ്ടോ അങ്ങനെ വല്ലതും ഉണ്ടോ ഓക്കേ ആപ്പം താങ്ക്യൂ താങ്ക്യൂ സിസ്റ്ററെ സി യു എഗൈൻ